നീന്തുന്ന സമയത്ത് നമ്മൾ വെല്ലുവിളി നേരിടുന്നത് നമ്മളെ ഏത് ഏത് ഏത് പ്രതലത്തിൽ നീന്തുന്നു എന്നതിനെ അനുസ നമ്മൾ തടാകത്തിലാണോ നീന്തുന്നത് നമ്മൾ കടലിലാണോ നീന്തുന്നത് നമ്മൾ നദിയിലാണോ നീന്തുന്നത് ഇതെല്ലാം ഒരു വെല്ലുവിളികൾ നിറഞ്ഞ നീന്തലുകളാണ് സംഗതി നമ്മൾ കടലിൽ നീന്തുമ്പോൾ വലിയ വലിയ തിരമാലകളുണ്ടാകും അപ്പോൾ ആ തിരമാലകളെ നമുക്ക് അതിജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വളരെ പ്രയാസമായ ഒരു കാര്യമാണ് അങ്ങനെത്തെ ഉള്ള വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട് ഉണ്ട് ചില സമയങ്ങളിൽ അപ്പോൾ നമ്മൾ കഴിവതും തിരമാലകൾ വലിയ തിരമാലകൾ ആണെങ്കിൽ അവിടെ നമ്മൾ നമുക്ക് പറ്റാവുന്ന ലെവലിൽ വലിയ ആഴത്തിലൊന്നും പോകാറില്ല അങ്ങനെയൊക്കെയാണ് അവിടെ ആ വെല്ലുവിളികളെ നേരിട്ട് നേരിട്ടുള്ളത് സംഗതി അതുപോലെത്തന്നെ നമ്മൾ ചെറിയ നദികളിലൊക്കെ നീന്തുമ്പോൾ അവിടെ വലിയ ആഴം കാണത്തില്ല സംഗതി ഈ ആഴം കാണാതെ ഇരിക്കുമ്പം നമുക്ക് അവിടെ സുഖമമായിട്ട് ഒന്നും ഇല്ലേ നമ്മുടെ കഴുത്തിൻ്റെ അവിടം വരെയേ വെള്ളം ഉള്ളത് എങ്കിൽ നമുക്ക് സുഖമായിട്ട് നീന്താൻ പറ്റുന്ന സംഗതി അവിടെ അപ്പം നമുക്ക് എന്തുവാ വെല്ലുവിളി വരുന്നത് നമുക്ക് ഈ ചെറിയ ചെറിയ പാമ്പുകൾ ചിലപ്പം നമുക്ക് കടിക്കാൻ വരും സംഗതി അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതേയുള്ളൂ ചിലപ്പം ചില മീനുകൾ നമ്മൾക്കിട്ട് കൊത്തുന്ന മീനുകളുണ്ടെങ്കിൽ കാരി അങ്ങനേലുള്ളത് അതല്ലെങ്കിൽ നദികളിൽ നീന്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് പിന്നെ ഈ നീന്തൽ കുളങ്ങളിൽ നമ്മൾ നീന്തുമ്പോൾ ചിലപ്പം അവിടുത്തെ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നീന്തൽകുളം അടച്ചിടുന്നതിൻ്റെ വെല്ലുവിളിയല്ല ഞാൻ ഇപ്പം ചിലപ്പം അവിടെ ഈ വെള്ളം ഇവർ നല്ലതായിരിക്കത്തില്ല സംഗതി അതൊരു വെല്ലുവിളിയായി ഇനി ഈ ഈ നീന്തൽ കുളങ്ങളിൽ അവിടൊക്കെ നമ്മളൊക്കെ ഈ പ്യൂരിഫിക്കേഷനും അതുപോലത്തന്നെ വാട്ടർ ട്രീറ്റ്മെൻറ്റും പ്രോസസ് ഒന്നും ഇല്ലെങ്കിൽ അതിങ്ങനെ വെള്ളം കെട്ടിക്കിടന്ന് നമുക്ക് നീന്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെത്തെ ഉള്ള നീന്തൽ കുളങ്ങളിൽ നമ്മൾ നീന്തുമ്പോൾ അപ്പം നീന്തൽ കുളം സാധാരണ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഒന്നും അടച്ച് അടച്ചിടാറില്ല പിന്നെ വലിയ വലിയ നീന്തൽ കുളങ്ങൾ നമ്മൾ ഹോട്ടല്കളുടെ നീന്തൽ കുളങ്ങൾ അവിടെ നമുക്ക് നീന്താനാണെങ്കിൽ അതിനുള്ള പ്രത്യേക പാസ്സുകൾ നമ്മൾ ചിലയിടത്ത് കുളിച്ചിട്ടാണെങ്കിലേ നമുക്ക് പോയി നീന്താൻ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് പിന്നെ ചിലയിടത്ത് ആണെങ്കൽ അതിന് നമ്മൾ പ്രത്യേക പാസ് എടുക്കണം സംഗതി അങ്ങനെയുള്ള ചില ചില ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ഫോർ സ്റ്റാർ ഹോട്ടലുകളൊക്കെ നീന്തൽകുളങ്ങളുണ്ട് അതൊക്കെ ഹൈ സെക്യൂരിറ്റി ലെവലിലുള്ള നീന്തൽ കുളങ്ങളായിരിക്കും പിന്നെ നമ്മുടെ നാടൻ പ്രദേശത്തേത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഈ ചെറിയ നദികളും അതുപോലെത്തന്നെ നീന്തൽ കുളങ്ങളും മാത്രമേ നമ്മുടെ ഈ പ്രദേശത്ത് കാണുകയുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതുപോലെ ഈ നീന്തലിൽ അങ്ങനെ വലിയ ഇംപോർട്ടൻസ് നമ്മൾ കൊടുക്കാറില്ല നീന്തുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ ഇതൊക്കെ തന്നെയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടുംപ്രദേശങ്ങളിൽ നീന്തൽ കഴിവതും നദിയിലും തോട്ടിലും കുളങ്ങളിലും ഒക്കെയായിരിക്കും നമ്മുടെ നീന്തലുകൾ നടത്തുക അതാണ് എൻ്റെ അഭിപ്രായം